ആ എന്തേ ആ ഇവിടെ കുറേ ഹോട്ടലുണ്ട് ഒരു ഭാരതി ഹോട്ടല് ഒരു എം ആർ എ ഹോട്ടല് പിന്നെ ഒരു മാസ്ക്കൂട്ട് ഹോട്ടല് ഉണ്ട് അത് കുറച്ച് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് മാസ്കോട്ട് ഹോട്ടല് കടലിൻ്റടുത്തായിട്ട് അടുത്തായിട്ട് വരും ആ അവിടെ നല്ല ഭക്ഷണമാണ് നല്ല മൽസ്യം നല്ല മത്സ്യത്തിൻ്റെ കറിയും പൊരിച്ചതും അങ്ങനെ എല്ലാം ഉണ്ടാവും നല്ല ഭക്ഷണമാണ് ഇവിടെ ഉം ആ അങ്ങനെ നല്ല വിലയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നിങ്ങളെപ്പോലത്തെ ടൂറിസ്റ്റുകളെല്ലാം വന്ന് ഭക്ഷണം കഴിക്കുന്നതു തന്നെയാണിവിടെ കൂടുതലും അവിടെ നിന്നുതന്നെയാന്ന് ടൂറിസ്റ്റുകൾ ഭക്ഷണം കഴിക്കുക കാരണം കടലിൻ്റെ അടുത്തായതുകൊണ്ട് എല്ലാ എല്ലാം കണ്ട് ആസ്വദിച്ച് ആസ്വദിക്കാൻ വരുന്നവരാന്നല്ലോ ടൂറിസ്റ്റുകൾ അപ്പോൾ അവിടെയിരുന്ന് നന്നായി ഭക്ഷണം കഴിക്കുക കടലിൻ്റെ ഭംഗി ആസ്വദിക്കുക വിലയൊന്നും ആൾക്കാർ അത്ര കാര്യമായി എടുക്കലില്ല എന്നാലും നല്ല ഭക്ഷണം തന്നെ ആണ് മോശല്ല ഇങ്ങക്ക് കഴിച്ചാലും അങ്ങന അത്ര വലിയ വിലയും അല്ലാ

ഓ അതിനൊക്കെ സൗകര്യം ഉണ്ടാവും അവിട വലിയ നല്ല സൗകര്യം ഉള്ള ഹോട്ടലാണ് നിങ്ങൾക്കെത്തിപ്പെടാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല പോകുമ്പം കുറച്ചപ്പുറത്തായിട്ട് ആൾക്കാരോട് ചോദിച്ചാൽ മതി ഇവിടെനിന്ന് കുറച്ചേ പോകണ്ടു

അത് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലായിട്ടൊരു ഭാരതി ഹോട്ടലുണ്ട് നിങ്ങളിപ്പം എവിടെയാണ് ഉള്ളത് ആ ഹാ ഹാ ഭാരതി ഹോട്ടൽ ഭാരതി ഹോട്ടലുണ്ട് ആ അതുതന്നെ അതുതന്നെ അതെയതെ